ഇത് കാവ്യ പൂജാരിയല്ലേ അപ്പോൾ എനിക്കൊരു ഹോള് പിന്നെ വേണമായിരുന്നു ഞങ്ങൾക്കൊരു വെഡ്ഡിംഗിനു വേണ്ടി കല്യാണം പതിനേഴാം തീയ്യതിയാണ് നടത്താൻ വേണ്ടിയിരിക്കുന്നത് ആ ഈ വരുന്ന പതിനേഴാം തീയ്യതി അപ്പം എങ്ങനെയൊക്കെയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഹോള് ഹോളിന്റെ ഡെക്കറേഷൻ വിളക്ക് മുഹൂർത്തം രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കാണ് ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നോക്കിക്കാം ആ ആ ഓക്കെ ആ അന്നേലും ഒരു ഏകദേശം ഒരു റൗണ്ട് നിങ്ങളിപ്പോൾ കുറെ പ്രോഗ്രാം നടത്തുന്നത് അല്ലേ ആ ഏകദേശം ആ ഒരു ഹോളിന് എത്രയാവും

അപ്പോൾ ആദ്യമേ അഡ്വാൻസ് പത് ഹലോ ആ അപ്പോൾ അഡ്വാൻസ് പതിനായിരം രൂപ ആദ്യമേ തരണം ആ കുഴപ്പമില്ല അത് തരുന്നത് അപ്പോൾ നിങ്ങളുടെ ഹോള് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഈ വിളക്ക് അതൊക്കെ നിങ്ങൾ കൃത്യ സമയത്ത് തന്നെ അറേഞ്ച് ചെയ്യുമോ ഞ ഒത്തിരി കോസ്റ്റിലി കോസ്റ്റിലി അല്ല ഒന്നുകിൽ നമുക്ക് കാണുമ്പോൾ ഒരു നോർമൽ വേയിൽ മതി പ്രോഗ്രാം ഒത്തിരി ആഡംബരം ആയിട്ടൊന്നും വേണ്ട

ഇപ്പോഴത്തെ പുതിയ മോഡൽ പൂക്കൾ എടുത്താൽ മതി എനിക്ക് അതിനോട് വലിയ ഇതില്ല അന്നേലും നിങ്ങളിപ്പോൾ കുറെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് എന്ന് അപ്പോൾ വിളക്കിൽ വെയ്ക്കാനൊരു രണ്ട് മുഴമെങ്കിലും മുല്ലപ്പൂവ് ആവശ്യമുണ്ട് വിളക്ക് നല്ല പോലെ ക്ലീൻ നീറ്റ് ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം

ഫ്ര ഹൈ ക്ലാസ് വേണ്ട മീഡിയം മീഡിയം മതി നോർമൽ വേയിൽ മതി ഒത്തിരി ഹൈ ക്ലാസ് ഒന്നും വേണ്ട ആ മാ ഒരു മൂവായിരം സംത്തിംഗ് ആൾക്കാർ എന്തായാലും വരും കാരണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നില്ലേ ഇടെ ഇത് രണ്ട് ഫ്ലോറും കൂടെ ആവുമ്പം കുഴപ്പമില്ല എന്നേലും മെയിൻ ഫോകസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ആയിരിക്കണം

കസേരയുടെ ഡെക്കറേഷൻസ് നിങ്ങൾ ഡെക്കറേഷൻസ് ആ ഉണ്ട് ഉണ്ട് ലൈറ്റ് ആന്റ് സൗണ്ട് ആവശ്യമുണ്ട് കയറി വരുന്നിടത്ത് മെയിൻ ഗെയ്റ്റ് തൊട്ട് ലൈറ്റ് ആന്റ് സൗണ്ട് ലൈറ്റും കാര്യങ്ങളുമൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം